ഹലോ ഹലോ നിങ്ങൾ നിങ്ങൾ തുണീം മൊത്തമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടോ ആ എനിക്ക് കുറച്ച് സാധനം വേണമായിരുന്നല്ലോ ആ എനിക്ക് സാരി വേണം നൈറ്റി വേണം അണ്ടസ്കേട്ട് വേണം അല്ല എനിക്ക് കുറച്ച് വേണം നമ്മൾ ചെറിയ ചെറിയ കടകളിലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടീട്ടാണ് ഞങ്ങൾ ഒരു പത്ത് ഇരുപത് കട കൊടുക്കണമെന്നുണ്ട് അത്രയ്ക്കുള്ളത് മതി കൂടുതൽ വേണ്ട നൈറ്റി ആ ആ നൈറ്റി അത് ആ നൈറ്റി തയ്ച്ചും ചുരിദാറിന്റെ പീസും അങ്ങനെ ആ ആ തുണി വേണം സാരി വേണം അണ്ടർസ്കേട്ട് വേണം സാരി വേണം അപ്പോൾ നിങ്ങൾ വിലയിലൊക്കെ ഇച്ചിരി കുറച്ച് തരുവോ എനിക്ക് ഞാനും കൊണ്ടക്കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരിച്ചിരി ലാഭം വേണ്ടേ നമ്മൾ നടക്കുന്നതിന്റെ ഒരു സാധാനത്തിന് ഒരെണ്ണത്തിന് അഞ്ച് രൂപ അഞ്ച് രൂപാവെച്ച് തരുമോ ആ തരാവോ ആ ഹാ ആ സാരിക്കൊക്കെ കുറച്ച് കൂടുതൽ തരുവോ സാരിക്കക്കെ സാരിയക്കെ

സാരിക്കൊരു പത്ത് രൂപായൊക്കെ വെച്ച് തരുമോ ആ ആ ആണോ ആ ആ ആ അപ്പം ഞാനെന്നാണ് വരണ്ടത് ഞങ്ങൾക്ക് ഓണം അടുക്കയൊക്കെ വേണം കമ്മീഷനെത്ര ശതമാനം കാണും ആണോ ഹാ ഹാ ഹാ എടുക്കുന്ന അനുസരിച്ച് കമ്മീഷൻ തരത്തുള്ളു വിറ്റ് പോകുന്ന അനുസരിച്ചാണോ എടുക്കുന്നത് അനുസരിച്ചാണോ വിറ്റ് പോകുന്ന സാധനം മേടിച്ച് കൊണ്ട് പോയി ഞാൻ വിൽക്കുന്ന അനുസരിച്ചാണോ അതോ എടുക്കുന്ന അനുസരിച്ചാണോ

ഇരുപത്തി അഞ്ച് തന്നെ ആ ഹാ വിറ്റ് പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ തിരിച്ചെടുക്കുമോ തിരികെ എടുക്കുവോ അയ്യോ അതെന്താണ് അതൊരു കഷ്ട്ടമല്ലേ അപ്പം ഞാനതെവിടെ കൊണ്ട്പോയി വിൽക്കും പിന്നെ പറ്റത്തില്ലല്ലോ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കാവുമ്പോഴത്തെന് അങ്ങ് തിരിച്ച് അവിടെ ഫാക്റ്ററീലോട്ട് അയക്കാൻ പറ്റുമല്ലോ എത്ര കുറയ്ക്കും

ആ തരത്തില്ലല്ലേ ആ അത് ശരി ആ എന്നാൽ ഞാനടുത്ത ദിവസം വരാവേ ആ അവിടെ കാണുമോ ആ ശരി ശരി ആ ശരി ഓക്കെ